പാചകം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലയാണ് അത് അത് കാരണം എനിക്ക് ധാരാളം പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് അത് യുറ്റൂബ് നോക്കിയും ഞാൻ ധാരാളം പുതിയ പുതിയ ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മോന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെത്തന്നെ ഞാൻ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻകരുതലെടുത്ത് മാത്രമേ ഞാൻ പാചക പാചകം ചെയ്യാറുളളൂ കൈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴ്ത്തേക്ക് വിരലുറ ഉപയോഗിച്ചാണ് ഞാൻ കൈ മുറിയാതിരിക്കാൻ വേണ്ടീട്ട് ചെയ്യുന്നത് അതുപോലെത്തന്നെ ഞാൻ പാചകം ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ ഇൻഗ്രീ ഏത് കറിക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എല്ലാം സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ചിട്ട് ആണ് ആഹാരം പാചകം ചെയ്യുന്നത് അതുപോലെത്തന്നെ ഗ്യാസ് ഞാൻ വളരെയധികം സൂക്ഷിച്ചിട്ട് ലീക്കാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെത്തന്നെ കുക്കർ കുക്കറിൽ പാചകം ചെയ്യുമ്പോഴും സാ ഞാൻ അത് വളരെ ശ്രദ്ധയോട് കൂടിയാണ് ഞാൻ പാചകം ചെയ്യുന്നത്